പതിനാറ് അഗസ്റ്റ് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ആറ് സെപ്റ്റംബറ് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇരുവത്തി അഞ്ച് ജൂണ് ആയിരത്തിത്തൊള്ളായിരത്തിഎൺപത്തി ഒൻപത് ഇരുപത്തി മൂന്ന് മെയ് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇരുപത്തി എട്ട് ഡിസംബറ് രണ്ടായിരത്തി പതിനൊന്ന്